എനിക്കങ്ങനെ പാചകവിദ്യകൾ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് എനിക്ക് പഠിക്കാൻ വലിയ പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നതാണേ പിന്നെ ക്വസ്റ്റ്യൻ ആസ്പദമാക്കിയിട്ട് ആണെങ്കിലും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എൻ്റെ ഒരു പാഷൻ തന്നെയായിരുന്നു കുക്കിംഗ് അതായത് പല ടേസ്റ്റ് ഉള്ള അതായത് കല്യാണത്തിന് മുന്നേ ഒക്കെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ടേസ്റ്റുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അവർക്കൊക്കെ സെർവ് ചെയ്യും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഞാൻ ചിക്കൻ കറിയൊക്കെ അച്ഛൻ പറയും മോളുണ്ടാക്കിയാൽ മതി മോള് ഉണ്ടാക്കിയതാണ് നല്ലതെന്ന് പറയും ഞാൻ തന്നെയാണ് ഏകദേശം എന്ന് പറയുന്ന അമ്മ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഞാൻ പറയും അമ്മേ ഞാൻ വെക്കാം എനിക്ക് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പറയും അമ്മ അവിടെ റെസ്റ്റ് എടുക്കും അമ്മ വയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വയ്ക്കാറുള്ളൂ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇതൊക്കെ വയ്ക്കാൻ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ എനിക്ക് നല്ല കുക്കിംഗ് ആണ് ഏറ്റവും നല്ലത് കുക്കിംഗ് ഒക്കെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് നമ്മള് രസിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മടുപ്പും ഇല്ലാത്ത ഒര് പണിയാണ് കുക്കിംഗ് അതുകൊണ്ടുതന്നെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുക്കിംഗ്